ഹലോ ലോട്ടസ് ഇവെൻറ്റ് മാനേജ്മെൻറ്റ് ഓ ഓ ഓക്കെ കേൾക്കാം ഓക്കെ ഇപ്പം എന്ത് പറ്റി ഇപ്പോളില്ല ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചെയ്യുക ഞങ്ങൾ ഓൾറെഡി ഇതിനെല്ലാ അറേഞ്ച്മെൻറ്റ്സും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് റീഫണ്ട് ചെയ്ത് തന്നില്ലെങ്കിലും ആ നെക്സ്റ്റ് ഡേയിലേക്ക് പ്രോഗ്രാം അറേഞ്ച്മെൻറ്റ്സ് ചെയ്തുതന്നാൽ മതിയോ പിന്നെ എപ്പോഴെങ്കിലും നടന്ന നടക്കുന്ന ദിവസത്തേക്ക് ഓക്കെ അങ്ങനെ റീഫണ്ട് ചെയ്യാനാണെങ്കിൽ സെവൻറി പെർസെൻറ്റ് റീഫണ്ട് കിട്ടുള്ളൂ തേർട്ടി പേർസൻ്റെജ് റീഫണ്ട് കിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത്

ഇങ്ങനെ എങ്കിൽ ഇങ്ങനെ അങ്ങനെ മാറ്റി വയ്ക്കുന്നത് അങ്ങനെ വളരെ അപൂർവ്വമായിട്ടേ വരാറുള്ളൂ അതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയാത്തത് ആ ഇങ്ങനത്തെ സാ

ആ ഓക്കെ ഓക്കെ ഇത് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വളരെ അപൂർവ്വമായിട്ട് വരാറുള്ളൂ അതുകൊണ്ട് അത് അങ്ങനെ പറയാൻ വിട്ട് പോയത് അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം എമൗണ്ട് റീഫണ്ട് ചെയ്യാം പക്ഷേ നിങ്ങൾ നെക്സ്റ്റ് ഇവൻറ്റ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഓർഡർ തീർച്ചയായും തരേണ്ടി വരും തരണം ആ ഓക്കെ അങ്ങനെ അത് ഷുവർ ആണെങ്കിൽ വൺ വീക്കിനുള്ളിൽ തന്നെ ഞങ്ങൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരാം അത് ആ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റേയിൽസ് ഞങ്ങൾക്ക് ഓഫീസിൽ വന്ന് തന്നാൽ മതി അല്ലെങ്കിൽ ത്രൂ വാട്സപ്പിൽ സെന്റ് ചെയ്താലും മതി ആ ഓക്കെ ഓക്കെ മാക്സിമം വൺ വീക്ക് അതിനുള്ളിൽ ചെയ്തേക്കാം ഓക്കെ വെൽക്കം